ഹലോ ആ അതെ പറഞ്ഞോളൂ ഉണ്ട് സാർ ആ ആ നമ്മുടെ ഫേമസ് ഐറ്റംസ് തന്നെ ആണ് സാർ ആ ചിക്കൻ കറിയും നെയ്ച്ചോറും നമ്മൾ ഓൾമോസ്റ്റ് ഒരു മൂന്ന് മണി വരെ ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര മെമ്പേഴ്സ് ഉണ്ട് അതൊക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഉണ്ട് സാർ ആ ആ ഓൾമോസ്റ്റ് നമ്മൾ ഇപ്പം റൂംസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാർ പതിനഞ്ച് പേരും ഇവിടെത്തന്നെ സ്റ്റേ ചെയ്യാൻ ഉള്ളവരാണോ എല്ലാം ഉണ്ടാവും സാർ ഓൾമോസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും പിന്നെ ആഫ്റ്റർനൂൺ വേണമെങ്കിൽ അതിനുള്ള ഫുഡ് ഉണ്ടാവും നെറ്റിന് ഉണ്ട് പിന്നെ ടീ ടൈമിന് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ചെയ്ത് കൊടുക്കും മ് ആ ഓക്കെ അതൊക്കെ ഉണ്ടാവും സാർ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഫുഡും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം

എല്ലാം ആ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ സാർ ലിസ്റ്റ് ചി പറയുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഫുഡ് നിങ്ങൾക്ക് കസ്റ്റം ചെയ്തുതരും ഐറ്റംസ് ഒക്കെ ഉണ്ട് സാർ

ആ ആ ഓക്കെ സാർ ആ ആയിക്കോട്ടെ സാർ എന്താണ് ഐറ്റംസ് എന്നൊക്കെ നോക്കിയിട്ട് കൺഫോം ചെയ്തിട്ട് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പറഞ്ഞുതരാം